ഹലോ സാർ എൻ്റെ പേര് ആശിക്ക് സാർ എൻ്റെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ മൈസൂർ വെച്ചെൻ്റെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു അപ്പം അതെനിക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആധാർ കാർഡ് ഡിജിറ്റൽ രൂപത്തിലാക്കണം അപ്പോൾ സാറിനെന്നെ അതിന് എൻ്റെ വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ആധാർ കാർഡെങ്ങനെ ഡിജിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ടത് ഞാനീ നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഏത് ഏജൻസിയുമായാണ് ബന്ധപ്പെടേണ്ടത് അതു നമ്മൾ അക്ഷയയിൽ കൊണ്ടു പോയി കൊടുത്താൽ കൊണ്ടു പോയി കൊടുത്താൽ നമ്മുടെ ആധാർ കാർഡ് ഡിജിറ്റലാക്കാൻ പറ്റുമോ അപ്പോൾ സാറിന് എൻ്റെ വിഷയത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നെപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ വേറൊരാളുടെ കൂടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടിരുന്നു അപ്പം അവർക്കും അവരുടെ ആധാർ കാർഡ് ഡിജിറ്റൽ ആട്ട് ഡിജിറ്റൽ അല്ലാത്തതു കൊണ്ടു തന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മളുടെ ഗവൺമെൻറിന് നമ്മളുടെ സൊസൈറ്റിക്ക് കീഴിൽ ഇങ്ങനത്തെ ഒരു ഡിജിറ്റലാക്കുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ബോധവത്കരണ ക്ലാസ്സൊക്കെ നമ്മളുടെ സാധാ വില്ലേജിലുള്ള ആൾക്കാർക്ക് ഗ്രാമീണ ആൾക്കാർക്കൊരു കൊടുത്താലൊക്കെ നന്നാകും അത് അതു പോലെ ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ പൊറുതിമുട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ ആധാർ കാർഡ് എല്ലാവർക്കും ഡിജിറ്റലായി നൽക്കുന്ന നൽക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ളൊരു ബോധവത്കരണ ക്ലാസ്സോ നമ്മളുടെ നാടുകളിൽ അല്ലെങ്കിൽ സ്കൂൾ അംഗനവാടി ഹെൽത്ത് സെൻ്റർ അങ്ങനത്തെയുള്ള പൊതു മേഖലകളിൽ വെച്ചൊരു ബോധവത്കരണ ക്ലാസ് അല്ലെങ്കിലൊരു മുന്നറിയിപ്പ് കൊടുത്താൽ നന്നാകും അല്ലേ ഓക്കെ താങ്ക്സ്